കാസർഗോഡ് സപ്തഭാഷാ സംഗമ ഭൂമിയുടെ നാടാണ് കാസർഗോഡില് മലയാളം തുളു ഭാഷ കൊങ്കണി മറാഠി കന്നഡ എന്നീ ഭാഷകളൊക്കെ സംസാരിക്കുന്നു പിന്നെ സംഗമ ഭൂമിയുടെ നാടാണ് കാസർഗോഡ് കാസർഗോഡിലെ വിവിധ തരം പട്ടണങ്ങളുണ്ട് കാഞ്ഞങ്ങാട് നീലേശ്വരം തൃക്കരിപ്പൂർ ചെര്ക്കള എന്നെല്ലാം പ്രധാന നൃത്തരൂപം കാസർഗോഡിലെത്തെ യക്ഷഗാനമാണ് യക്ഷഗാനം കണ്ടുപിടിച്ചത് പാർഥി സുബ്ബരായയാണ് പിന്നെ മെയിൻ ക്രിക്കറ്റ് താരം അനിൽ കുംബ്ലെയുടെ ജന്മദേശം കാസർഗോഡാണ് മുൻ ക്രിക്കറ്റ് താരം ജെ കബഡി താരമായ ജഗദീഷ് കുംബ്ലെയുടെ സ്ഥ ജന്മദേശം കുംബ്ലെയിലാണ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക പുഷ്പം വെള്ളത്താളിയാണ് ഔദ്യോഗിക പക്ഷി ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ് ജീവി കാണപ്പെടുന്നതാണ് കാണപ്പെടുന്നത് പയസ്വിനി പുഴയിലാണ് കാസർഗോഡിൻ്റെ അമ്പത് കിലോമീറ്റർ മംഗലാപുരവും അറുപത് കിലോമീറ്റർ തെക്ക് പുത്തൂരുമാണ് കാസർഗോഡിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് വിവിധ ആചാരങ്ങളെ ആചരിക്കുന്നുണ്ട് തെക്ക് ഭാഗത്തെല്ലാം തെയ്യങ്ങളെല്ലാം കുറവ് പകരം പടയണി അങ്ങനത്തെ എല്ലാം പാലക്കാട് ആലപ്പുഴ ജില്ലയിലെല്ലാം പടയണിയാണ് കാണപ്പെടുന്നത് ഈ തെയ്യം എല്ലാം കാണപ്പെടുന്നത് കണ്ണൂരിന് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലാണ് തെയ്യം കാണുന്നത് നമുക്ക് എന്തെങ്കിലും അസുഖം എല്ലാം വന്നെങ്കില് നേർച്ച എല്ലാം കൊടുക്കാന് കോലം കൊടുക്കാനെല്ലാം നമ്മൾ കാസർഗോഡിൻ്റെ ഒരു വിശ്വാസമാണ് തെയ്യം കോ തെയ്യത്തിൻ്റെ കോലം നടത്തുക അല്ലെ കാസർഗോഡിൻ്റെ ഒരു വിശ്വാസമാണ് പകരം തെക്ക് ഭാഗത്ത് അങ്ങനെ നേർച്ച കൊടുക്കുന്നത് പടയണിക്കോലം എന്ന് പറയുന്ന ഒരു ഇതാണ് പിന്നെ തെക്കോട്ടെല്ലാം കളമെഴുത്ത് സ് നാഗക്കളി സർപ്പക്കളി എല്ലാം ഉണ്ട് എന്തെങ്കിലും ശരീരത്തിനെല്ലാം സുഖമില്ലാതായെങ്കില് അവരുടെ കുടുംബത്തില് നേർച്ച പറയുന്നവര് ആചാരമാണ് സർപ്പക്കളി നാഗക്കളി അതായത് കളമെഴുതുന്ന നാഗക്കളിക്ക് കളമെഴുതുന്ന അതിന് കറുപ്പ് വെള്ള പച്ച മഞ്ഞ ചുവപ്പ് എന്നു പറയുന്ന കളേഴ്സെല്ലാം ഉപയോഗിക്കുന്നു ഒരു പെണ്ണുങ്ങള്ക്ക് ആ അവിടെ ഇരുന്നിട്ടാവുമ്പം ദർശനം വന്നിട്ട് നാഗക്കളത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നു പെണ്ണുങ്ങളും ആണുങ്ങളെല്ലാം വരുന്നു പിന്നെ തെയ്യം അങ്ങനെ തെയ്യം വിവിധതരം തെയ്യങ്ങളുണ്ട് ഗുളിയൻ തെയ്യമെന്ന് പറയുന്നത് കോഴി അറത്തിട്ട് ഉണ്ടാവുന്ന അതൊരു തെയ്യത്തിനെയാണ് ഗുളികൻ തെയ്യമെന്ന് പറയുന്നത് നമ്മള് നേർച്ചക്ക് കോഴി കൊടുക്കുന്നത് പിന്നെ കൊറഗജ്ജ തെയ്യമുണ്ട് മുത്തപ്പൻ തെയ്യമുണ്ട് പറശ്ശിനിക്കടവ് അമ്പലത്തില് മെയ്നായിട്ട് നടക്കുന്നത് മുത്തപ്പൻ തെയ്യമാണ് കുറേ ആൾക്കാര് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോവാറുണ്ട് മുത്തപ്പൻ തെയ്യത്തിനെ ഇതാക്കാൻ അങ്ങനെ നമ്മളെ കാസർഗോഡിലെ വിവിധ ഭാഷകളാണ് വിവിധ ഗോത്രങ്ങള് വിവിധ ജാതികള് വിവിധ സംസ്കാരങ്ങള് നിലനിർത്തുന്നുണ്ടെന്നുവെച്ചാല് ചില മുസ്ലിംസിനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകാറുണ്ട് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചില ഹിന്ദൂസെല്ലാം അവരുടെ പള്ളിയില് പോകാറുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഇതാക്കാൻ വേണ്ടി പിന്നെ കുറേ ഭാഷകളുണ്ട് കൊങ്കണി ഭാഷയുണ്ട് മറാഠി ഭാഷയുണ്ട് കുറേ ജാതിക്കാരുണ്ട് ചാലിയരുണ്ട് നായരുണ്ട് പിന്നെ കുറേ അങ്ങനത്തെ ബ ബ്രാഹ്മിന്സ് ഉണ്ട് എസ് സി എസ് ടിക്കാരുണ്ട് അങ്ങനത്തെ കുറേയുണ്ട് അപ്പോള് ഓരോ സംസ്കാരത്തിലും ഓരോ ജാതിയിലും വിവിധ വിവിധ തരം പൂജകളും അനുഷ്ഠാനങ്ങളുമാണ് ആചരിക്കുന്നത് കുറേ താനങ്ങളുണ്ട് കുറേ അമ്പ അമ്പലങ്ങളുണ്ട് ഓരോ താനത്തിലും ഓരോ ആചാരങ്ങളും ഓരോ വിശ്വാസങ്ങളും ഓരോ ദൈവത്തിനെയാണ് ആരാധിക്കുന്നത് പിന്നെ നമ്മളുടെ ഇത് നമ്മളുടെ അതായത് നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന കുറേ ഗോത്ര വിഭാഗങ്ങളുണ്ട് അവരുടെ ഭാഷകളും സംസ്കാരങ്ങളും പിന്നെ ജാതികളും ഒക്കെ വ്യത്യാസമാണ് പല ജാതിയിൽപ്പെട്ടവര് അവരുടെ ഭക്ഷണം അവരുടെ ആഹാര രീതി അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഒക്കെ പലവിധമാണ് ഓരോ നാട്ടില് പോകുമ്പോള് നമുക്ക് ഓരോ ഭക്ഷണ രീതിയും ഓരോ ഡ്രസ്സിങ് സ്റ്റൈലും ഇതൊക്കെ കാണാം അപ്പോള് ചെ കുറേ നാട്ടിലത്തെ ഡ്രസ്സിങ് സ്റ്റൈല് കുറേ നാട്ടിലത്തെ ഭക്ഷണ രീതി എല്ലാം നമുക്ക് ആസ്വദിക്കാം അപ്പോള് മെയിന് കാസർഗോഡ് ജില്ലയിലാണ് പണ്ടേ അറിയപ്പെടുന്നത് സപ്ത ഭാഷ സംഗമ ഭൂമി വിവിധ ഭാഷകളുണ്ടാവുന്നു വിവിധ സംസ്കാരങ്ങളുണ്ടാവുന്നു വിവിധ ആരാധനാലയങ്ങൾ ഉണ്ടാവുന്നു പിന്നെ വിവിധ ഗോത്ര വർഗ്ഗങ്ങളുണ്ടാവുന്നു വിവിധ ജാതിക്കാരെല്ലാം ഉണ്ടാവുന്നു പിന്നെ താഴ്ന്ന ജാതിക്കാരുള്ളവർക്ക് പെട്ടെന്ന് ജോലി കിട്ടും ഉയർന്ന ജാതിക്കാർക്ക് ജോലി കിട്ടാൻ കുറച്ച് താമസമുണ്ടാവും അതുകൊണ്ട്